ഇവിടുത്തെ പ്രത്യേക പ്രദേശത്തെ പ്രധാന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നു പറയുന്ന സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നുപറഞ്ഞാൽ സ്ക്കൂളുകൾ തന്നെയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിട്ടുള്ളത് പിന്നെ സർവ്വകലാശാലകൾ അതേപോലെതന്നെ ഒരു കാര്യമാണ് വായനശാലകൾ അതും ചെറിയൊരു രീതിയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനം തന്നെയാണ് ബുക്സുകൾ ഇതൊക്കെ വച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് നമുക്ക് ഈ വെക്കേഷൻ സമയത്തൊക്കെ അതായത് സൺഡേ അല്ലെങ്കിൽ വെക്കേഷൻ സമയത്തൊക്കെ നമുക്ക് കുറേ അറിവ് അതായത് സ്ക്കൂളുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായ സ്ക്കൂളുക്കൾക്കും കോളേജുകൾക്കും വല്ലാത്തൊരറിവ് തന്നെ നമ്മൾക്ക് അവിടെ നിന്ന് കിട്ടും അത് നമ്മൾക്ക് പ്രത്യേകമൊരു നേട്ടം തന്നെയാണ് പിന്നെ നമുക്ക് ഈ സമൂഹത്തിൽ ഒരു അറിവുണ്ടാകും പിന്നെ സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളൊന്നുമല്ല അങ്ങ് അതുമാത്രമുള്ള ഒരറിവല്ലയിത് വേറെ രീതിയിൽ തന്നെയുള്ള അറിവാണ് ഇത് വായനശാലയിൽ ബുക്സുകൾ വായിച്ചിട്ടുള്ള അറിവ് വച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എവിടെയൊക്കെയാണ് നമുക്ക് അതിൻ്റെ ആവിശ്യം വരികയെന്നുപോലും ചിന്തിക്കാൻ പറ്റില്ല ആ രീതിയിലുള്ള അറിവുകളാണ് നമ്മൾക്ക് അതിൽ നേടാൻ പറ്റുന്നത് എന്താണെന്നു വച്ചാൽ നമ്മൾ സ്ക്കൂളുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പഠിക്കുന്നത് എക്സാമിനു വേണ്ടിയിട്ടാണ് ഇത് നമുക്ക് പൊതുവായ സമൂഹത്തിന് ഉപകാരമായ അറിവുകളുണ്ടാകും ബുക്സുകൾ വായിക്കുമ്പോൾത്തന്നെ അറിവുകളുണ്ടാകും